നൃത്തം പഠിച്ചിട്ടുള്ള ഒരാൾ അല്ല നൃത്തം അറിയാമോ ചോദിച്ചാൽ നന്നായി കളിക്കാൻ അറിയില്ലെങ്കിലും കളിക്കാൻ പറ്റുന്ന ഒന്നു തന്നെയാണ് ആരെങ്കിലും പഠിപ്പിച്ചു തന്നാൽ കളിക്കാൻ പറ്റും അത് തന്നെ പിന്നെ ഈ ക്ലാസിക്കൽ ഡാൻസിന് കൈ വഴങ്ങുക കാല് വഴങ്ങുക അതൊന്നും അറിയില്ല മോഡേൺ നൃത്തങ്ങളുടെ ഇടയിൽ ആ അതാണ് ഇഷ്ടമുള്ളത് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്നു വച്ചാൽ ക്ലാസിക്കലിനേക്കാളും കുറച്ചു കൂടെ സിമ്പിളാണ് മോഡേൺ മോഡേണെന്ന് തോന്നിയിട്ടുണ്ട് അത് മാത്രമല്ല ക്ലാസിക്കല് പഠിക്കാത്തത് കൊണ്ടാണോ അത് ചെയ്യാൻ പറ്റാത്തത് അത് എനിക്ക് അറിയില്ല അധികം നല്ലോണം ഡാൻസ് കളിക്കും എന്നുള്ള ഒരാൾ അല്ല എന്നാലും ഡാൻസ് കളിക്കാൻ ഇഷ്ടം ഒക്കെയാണ് ഇഷ്ടമാണ് ഡാൻസ് പഠിക്കാൻ പോയിട്ടില്ല പണ്ടൊക്കെ നല്ലോണം കളിക്കുമായിരുന്നു പക്ഷെ കൂടുതലായിട്ട് അറിയില്ല എന്നാലും യൂത്ത് ഫെസ്റ്റിവല് അങ്ങനെ ഓരോരോ ഫെസ്റ്റിവലിനൊക്കെ കളിച്ചു ഓരോരോ ഇതുണ്ട് പിന്നെ ക്ലാസ് സ്കൂളിൽ ആനിവേഴ്സറി വരുമ്പോൾ അതിൽ ഡാൻസ് കളിക്കലുണ്ട് പിന്നെ ഫ്ലാഷ് മോബ് വരുമ്പോൾ ഇതൊക്കെ ഇതൊന്നും ക്ലാസിക്കല് വരാത്തതു കൊണ്ട് മോഡേൺ നൃത്തങ്ങൾ തന്നെയാണ് കളിച്ചിട്ടുള്ളത് കൂടുതലും മോഡേൺ തന്നെയാണ് ഇഷ്ടം ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറ മോഡേൺ നൃത്തത്തെയാണല്ലോ പ്രോത്സാഹിപ്പിക്കുന്നത് ക്ലാസിക്കൽ ഇല്ല എന്നല്ല ക്ലാസിക്കൽ ഉണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി മോഡേൺ നൃത്തങ്ങളോടാണ് ഇഷ്ടം കൂടുതൽ ഉള്ളത് അപ്പോൾ അത് തന്നെയാണ് ഇഷ്ടം കൂടുതലായിട്ടും മോഡേണാണ് കളിക്കാൻ നോക്കിയിട്ടുള്ളത്